ഇപ്പോൾ എസ് ടി ഇ എം കോളേജുകളിൽ പലതരം പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ അവിടെ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിൽ നടക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറെൻറ് ടൈപ്പ് ഓഫ് കോഴ്സ് കാര്യങ്ങളൊക്കെയുണ്ട് കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇപ്പോൾ നമുക്കിപ്പം എൻ ഐ ടി കോളേജുകളിൽ കൂടുതലായിട്ടും എഞ്ചിനീയറിങ്ങും കാര്യങ്ങളുമാണ് പഠിപ്പി പഠിപ്പിക്കുന്നത് അത് നമ്മളുടെ കുന്നമംഗലത്താണ് എൻ ഐ ടി കോളേജുള്ളത് അവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇ ആർട്ടി ടെക്സ്ചർ പിന്നെ എഞ്ചിനീയറിങ് വിഭാഗത്തിൽപ്പെട്ട പലരീതിയിലുള്ള കോഴ്സുകൾ കാര്യങ്ങളുണ്ട് ഇപ്പം ആ ബയോ ബയോടെക്നോളജി അങ്ങനെത്തെ പലതരത്തിലുള്ള ആ കോഴ്കളും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള പ്രയോജനങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് ഇവർക്ക് ഇപ്പം പലതരമുള്ള ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് പലതരം ഡിസൈനും കാര്യങ്ങളും ചെയ്യാൻവേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ ഒരു വീടുണ്ടാക്കണമെങ്കിൽ കുടുതലായിട്ട് ആർക്കിടെക്ചർമാരാണ് പ്ലാനും കാര്യങ്ങളും വരയ്ക്കുക ഒരു പ്ലാൻ വരയ്ക്കുന്നതിന് ഏകദേശം നല്ല രീതിയിലുള്ള പൈസ എമൗണ്ട് കാര്യങ്ങളൊക്കെ വാങ്ങുന്നതാണ് അപ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടാൻവേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ പലതരം കോഴ്സുകളുണ്ട് അതിൽ ഏതുവേണമെങ്കിലും ഇവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്